എൻ്റെ പ്രദേശത്തെ ആളുകൾ സാധാരണയായി അഭിമുഖീകരിക്കുന്ന കുറെ കുറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കൂടുതലായും നമ്മുടെ കാലവസ്ഥ മാറുന്നതിലൂടെയാണ് പെട്ടന്ന് അസുഖങ്ങൾ പിടിക്കുന്നത് വേനൽക്കാലത്ത് ത്വക്ക് രോഗങ്ങൾ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് കല്ല് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാറുണ്ട് അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാത്ത സമയങ്ങളിലാണ് ഇങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ സൂര്യാഘാതം ഉണ്ടാവുക അങ്ങനെ കുറെ കുറെ ആരോഗ്യ പ്രശ്നനങ്ങൾ അവിടെ ഇവിടെ അഭിമുഖീകരിക്കപ്പെടുന്നു കൂടെ ഇപ്പോൾ മഴക്കാലമായതിനാൽ കൊതുകുകൾ പെറ്റുപെരുകി വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ പെറ്റുപെരുകി കൊതുകുകളിൽ നിന്നും അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നു ലൈക് ചിക്കൻ ഗുനിയാ ഡെങ്കു അങ്ങനെ കുറെ കുറെ അസുഖങ്ങൾ പിടിക്കുന്നു പിന്നെ തണുപ്പടിച്ച് മഴ കൊണ്ട് പനി പിടിക്കുന്നു കുഞ്ഞി കുട്ടികൾക്ക് വരെ മഴ നനഞ്ഞ് ഇപ്പോൾ സ്കൂള് തുറന്നതുകൊണ്ട് സ്കൂളിൽ പോയാണെങ്കിലും പനിപിടിച്ച് അത് പകർന്ന് പകർന്ന് പിടിക്കുന്ന കുറെ കുറെ അസുഖങ്ങളുണ്ട് അങ്ങനെ കുറെ കുറെ ആരോഗ്യപ്രശ്നങ്ങൾ നം എൻ്റെ നാട്ടിൽ നാട്ടിലെ ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്